പണ്ടൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ പിള്ളേർ പ്രായമാകുമ്പോള് ആണ്കുട്ടി ആണേലും പെണ്കുട്ടി ആയാലും പ്രായമാകുമ്പോള് ബ്രോക്കര്മാർ വരും അവരിങ്ങനെ അന്വേഷിച്ച് സ്ഥലങ്ങളിൽ ആണ്കുട്ടി ഉണ്ടോ പെണ്കുട്ടി ഉണ്ടോന്ന് ചോദിച്ച് അങ്ങനെ വീട്ടിൽ വന്ന് പറയും ഞാൻ ഇന്നടത്തുള്ളൊരു ആണ്കുട്ടിയുണ്ട് നല്ലതാണ് നല്ല ജോലിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറയും അങ്ങനെ പെണ്കുട്ടികളെപ്പറ്റി ആണ്കുട്ടികളുടെ വീട്ടിലും ചെന്ന് പറയും ഇന്നടത്തൊരു പെണ്കുട്ടി ഉണ്ട് അങ്ങനെ അങ്ങനെയൊക്കെയാണ് പണ്ട് കാര്യങ്ങള് കാലങ്ങളിൽ വിവാഹം നടത്തി ഇപ്പോഴങ്ങനെ അതൊക്കെ മാറ്റി ഇപ്പമെല്ലാം അട്വെര്ട്ടൈസ്മെന്റ്വാണ് മാട്രിമോണിയല് ചാവറ അങ്ങനെ പല പല ഇതിന്റെ ഇതുണ്ട് അട്വെര്ട്ടൈസ്മെന്റ് അതില് നമ്മൾ പരസ്യം കൊടുക്കുന്നു പരസ്യം കൊടുക്കുമ്പം നമുക്ക് യോജിച്ച ആണ്കുട്ടികളെയും പെണ്കുട്ടികളെ ഒക്കെ കിട്ടുന്നു അതിൽ നമ്മൾ അന്നേരം നമുക്കൊത്തിരി ഒത്തിരി ഒത്തിരിയൊത്തിരി കുഞ്ഞ് കുട്ടികളെ കാണാന് പറ്റുന്ന ആണ്കുട്ടികള്ക്ക് ആവശ്യം ഉള്ള ആണ്കുട്ടികളേം പെണ്കുട്ടികളേം ഒരു ജില്ലയില്പ്പെട്ടവരാണെങ്കിൽ ആ ജില്ലയിലുള്ളവരേം ഇന്ന ഡയേസസിലാണെങ്കിൽ അങ്ങനെ ഇന്ന കാറ്റഗറി ആണേൽ അങ്ങനൊത്തിരി ഒത്തിരി സൗകര്യങ്ങള് നമുക്ക് കിട്ടുന്നു അങ്ങനെ അതിലിങ്ങനെ നമ്മൾ ദിവസവും നോക്കുമ്പം നമുക്ക് ഇഷ്ടമുള്ളത് ലൈക്ക് ചെയ്യാൻ ലൈക്ക് ചെയ്യുമ്പം എതിര്കക്ഷി അതിനിഷ്ടമാണെങ്കില് സബ്മിറ്റ് ചെയ്യാം അങ്ങനെ മുന്നോട്ട് പോയി അവസാനം നമ്മൾ എല്ലാ വിധത്തിലും ഒന്ന് ഇതായി കാണുമ്പം നമ്മൾ പരസ്പരം പോയി കാണുന്നു ആദ്യം കുട്ടികൾ തമ്മില് കാണുന്നു കാണുന്നു സംസാരിക്കുന്നു അതിനവസരം ഉണ്ടെങ്കില് അങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ പേരന്റ്സും കാണുന്നു വീടുകളില് പോയി അന്വേഷിക്കുന്നു ജോലിയെ പറ്റി കുടുംബത്തെ പറ്റി കുടുംബത്തിലെ മാതാപിതാക്കൾ സഹോദരങ്ങൾ ഏത് കുടുംബമാണ് എങ്ങനെയാണ് വിശ്വാസം ഉണ്ടോ വിശ്വാസം ഇല്ലയോ എന്തുണ്ട് പഠിത്തം ജോലിയുണ്ടോ ഇതൊക്കെ പറ്റി അന്വേഷിച്ച് നമ്മള് രണ്ട് കൂട്ടര്ക്കും തമ്മിൽ യോജിച്ചതാണേൽ നമ്മൾ മുന്നോട്ട് പോകുന്നു പിന്നെ നമ്മളിത്രേക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ടവരെ അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങളെ പിള്ളേരുടെ പേരന്റ്സ് കഴിയുമ്പം അവരുടെ സഹോദരങ്ങൾ അങ്ങനെ അവരോടെക്കെ സംസാരിച്ചെല്ലാം കഴിയുമ്പം എല്ലാവര്ക്കും താല്പര്യം ആയിട്ട് കാണുമ്പം നമ്മൾ പോകുന്നു പോയി കഴിഞ്ഞിട്ട് നമ്മളവരുടെ വീടും പരിസ്ഥിതിയും ഒക്കെ അന്വേഷിക്കും പ്രത്യേകിച്ച് ആള്ക്കാരോടൊന്നും ചോദിച്ച് മനസിലാക്കുന്നതുമില്ല നമ്മളെല്ലാം നേരിട്ട് ചോദിക്കുന്നു നേരിട്ടറിയുന്നു ഇപ്പോഴത്തെ ഇപ്പോഴാണെങ്കില് എല്ലാ വീടുകളിലും ഒരു കൊച്ചോ രണ്ട് കൊച്ചോ ഉണ്ട് അല്ല പണ്ടത്തെപ്പോലെ നമ്മൾ ടൗറിയോ അതങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പവില്ല ഉള്ളത് കൊടുക്കാൻ ഇഷ്ടമുള്ളത് കൊടുക്കുക മേടിക്കുക അത്രേയുള്ളൂ കുട്ടികൾ സ് ഇഷ്ടം ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്ന അവര്ക്കിഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നമ്മൾ പേരന്റ്സും കൂടൊന്ന് അന്വേഷിക്കും എങ്ങനെ ഉണ്ടവരുടെ ബാക്ക് ഗ്രൗണ്ട് എങ്ങനെയുണ്ടവരുടെ വിശ്വാസജീവിതം മറ്റുള്ളവരുമായിട്ടുള്ള പെരുമാറ്റം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടവിടത്തെ ആള്ക്കാർ അവരെപ്പറ്റി പറയുന്നത് നമ്മളിപ്പം ക്രിസ്ത്യാനികളാണേൽ നമ്മളാ പള്ളിയില് ചെന്ന് പള്ളിയിൽ വികാരി അച്ഛനോട് പറയുന്നു വികാരി അച്ഛൻ പരിചയം ഉണ്ടെങ്കിൽ വികാരി അച്ഛന് അന്വേഷിച്ച് പറയും നല്ല ഇതാണെങ്കിൽ നമ്മൾ പിന്നത് മുന്നോട്ട് കൊണ്ടുപോയി നമ്മളത് ഉറപ്പിക്കുന്നു ഇങ്ങനെ ഒക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് നമുക്കൊത്തിരി ഒത്തിരി നല്ല നല്ല കാര്യങ്ങളും നല്ല നല്ല നമുക്കും ചേര്ന്ന് കുട്ടികളെ കണ്ട് പിടിക്കാൻ നമ്മുടെ കുട്ടികള്ക്ക് വേണ്ട പാര്ട്ട്നേര്സിനെ കണ്ട് പിടിക്കാൻ പറ്റുന്നു അതൊത്തിരി നല്ലതായിട്ടിപ്പം തോന്നുന്നുണ്ട് ഒത്തിരി ആള്ക്കാർ അറിയുന്നുമില്ല നാട്ടുകാർ മുഴുവനും ബ്രോക്കര്മാർ വീട്ടില് വന്ന് കയറിയിറങ്ങി പോവുമ്പം ഇന്നടത്ത് ഒരു കൊച്ചിന് ആലോചനയായിട്ട് വന്നതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതിലിപ്പം നമുക്കൊത്തിരി ഒത്തിരി മറ്റുള്ളവരറിയാതെ നമുക്ക് കണ്ട് പിടിക്കാൻ പറ്റുന്നു അതൊത്തിരി മുന്നോട്ട് വന്ന് നല്ലതാന്ന് നല്ല നല്ലൊരു അഭിപ്രായമാണ് നല്ലതാണ് അങ്ങനെ നമുക്ക് പരസ്പരം അറിയാനും കുട്ടികൾക്ക് ഫോണില്ക്കൂടെ ആണേലും വിഡിയോ കോളിലൂടെയാണേലും ഒക്കെ സംസാരിക്കാനും കാണാനും അവര്ക്ക് താല്പ്പര്യം ഉണ്ടാകാനും ഒക്കെ സാധിക്കുന്നുണ്ട് അതൊത്തിരി ഒത്തിരി നന്മയായിട്ട് തീരുന്നുണ്ട് അങ്ങനെയൊക്കെ ആണേലും ഇപ്പോഴും കല്യാണം കഴിക്കാതെ വേണ്ടെന്ന് പറഞ്ഞുള്ള കൊച്ചുങ്ങളുണ്ട് എന്നാലും നമുക്കിങ്ങനെയൊക്കെ മുന്കൈ എടുത്ത് അട്വെര്ട്ടൈസ്മെന്റ് കൊടുത്തും കുറെ ഫോട്ടോസൊക്കെ കൊടുക്കുമ്പോൾ പിള്ളേര്ക്ക് താല്പ്പര്യം വരുന്നു അതിന് ശേഷം നമുക്ക് രണ്ട് കൂട്ടര്ക്കും താല്പര്യമൊക്കെ ആയി കഴിയുമ്പോള് നമ്മൾ കല്യാണം ഉറപ്പിക്കുന്നു രണ്ട് കുടുംബത്തിലെ ആള്ക്കാർ പരസ്പരം കാണുന്നു ഉറപ്പിക്കുന്നു ഡേറ്റ് നിശ്ചയിക്കുന്നു പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിനെ ആശ്രയിച്ചോണ്ട് ഇതിലെല്ലാം മുന്നിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് കൊണ്ടാണ് നമ്മളിത് തുടങ്ങുന്നത് അതെല്ലാപ്പൊരു വലിയ വിജയമായിട്ട് മുന്നോട്ട് പോകുന്നു